ആ ഗ്യാസ് ഏജൻസിയല്ലേ ഞാനെ കൊടുപ്പുന്നേന്നാണെ എനിക്ക് ഗ്യാസിൻ്റെ കാര്യങ്ങൾ ഗ്യാസിൻ്റെ കണക്ഷനും വേണമായിരിന്നു കണക്ഷൻ എടുത്തിട്ടുണ്ട് പക്ഷേ ആദ്യവായിട്ടായോണ്ട് എനിക്കൊരു പേടി അത് ഉപയോഗിക്കാൻ എനിക്കിപ്പഴും അറിയത്തില്ല അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ശരിക്കും അറിയത്തില്ല അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് തരാവോ ആ അത് തന്നെ അടുപ്പാണ് ഉപയോഗിച്ചോണ്ടിരുന്നത് ഓ ആ പുതിയ അ ആ പുതിയ അടുക്കള ഞങ്ങൾ പണിതു അതിന് അത് വെയ്ക്കാനുള്ള സജ്ജികരണമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരേം ഗ്യാസ് കത്തിച്ചിട്ടോ ഉപയോഗിച്ചിട്ടുവില്ല

സുരക്ഷിതമാക്കാന്ന് പറയുമ്പം ഞാനെന്താ ചെയ്യേണ്ടത്

ആ ആ ആ ആ എങ്ങനെയെങ്കിലും ലീക്കായി വന്നാൽ വാ മൊത്തത്തിൽ നമ്മളെന്തെങ്കിലും ചെയ്ത് ഓ തുറന്ന്

ഓ ആ ആ എന്ത് ആ ഗ്യാസ് അകത്ത് തന്നെ അടുക്കളക്കകത്ത് തന്നെ വെയ്ക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ ഞങ്ങൾ അടുക്കളയിലാണ് അത് സ്ലാബിലോട് ചേർന്നാണ് വച്ചിരിക്കുന്നത് പതിയെ ചെയ്യണം

ആ ഞങ്ങളിപ്പം അങ്ങനായിരുന്നു സർബീസ് ചെയ്യുന്നത് അതിപ്പം നാളെ ആ

ഇപ്പം ആ ഇപ്പം ഈ ഇപ്പോൾ പത്രത്തിലൊക്കെ കാണുന്നില്ലേ പുറത്തൂടെ തീ വരുന്നതൊക്കെ അതൊ അപ്പം എന്ത് ചെയ്യാൻ പറ്റും സിലിണ്ടറിന് തീ പിടിക്കോ എന്തൊക്കെ

ആ ആ ആ

ആ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ നിങ്ങൾ സഹായത്തിന് വരുവല്ലോ ശരിയെന്നാൽ

ഓക്കെ